ആ എന്താണ് മാം വേണ്ടത് ആ മാം ഇവിടെ ഫ്രഷ് ആപ്പിൾ ഉണ്ട് ബനാന ഉണ്ട് പിന്നെ കിവി ഉണ്ട് റംബുട്ടാൻ ഉണ്ട് സ്ട്രോബെറി ഒക്കെയുണ്ട് മാം ഇന്നലത്തെ റേറ്റ് നോക്കൂ ആ ഇന്നലത്ത റേറ്റ് നോക്കുമ്പോൾ നല്ല ഓഫർ ആണ് ഇന്നുള്ളത് അപ്പോൾ ഇന്ന് സ്ട്രോബെറിക്ക് ആ കിൽപ്പിന് എൺപത് രൂപയേ ഉള്ളൂ ആപ്പിളിന് നൂറ് രൂപയേ ഉള്ളൂ കിൽപ്പിന് ആ ബനാനയ്ക്ക് രണ്ട് കിൽപ്പിന് നൂറാണ് ആ ഓക്കെ മാം പിന്നെ വേറെ എന്തെങ്കിലും ആ ഓക്കെ ഏത് ബനാന ആണ് മാം വേണ്ടത് കദളി എങ്ങനെയാണ് മീൻസ് എത്രയാണ് വേണ്ടത് ആ ഓക്കെ മാം പിന്നെ എന്തൊക്കെയാണ് മാം വേണ്ടത് ഓക്കെ ഓ വേറെ കിവി ഉണ്ട് മാം പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഓക്കെ എത്രയാണ് മാം ഓക്കെ

അല്ല മാം ഹോം ഡെലിവെറി ഉണ്ട് മാം എവിടുത്തേക്കാണ് മാം വേണ്ടത് എവിടെയാണ് കാസർഗോഡ് എവിടെയാണ് മാം ഓക്കെ മാം ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം മാം ആ ആ ആ ഓക്കെ മാം ഇവിടെ ഫ്രഷ് ഐറ്റം ഇവിടെ എല്ലാം വിൽക്കാറുള്ളൂ എല്ലാം ഫ്രഷ് ആണ് കേട്ടോ പേടിക്കേണ്ട ഓക്കെ ശരി താങ്ക് യൂ മാം